കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ധാരാളമുണ്ട് പ്രത്യേകിച്ചും ബാക്ക് വേഡ്സ് കമ്മ്യൂണിറ്റിക്ക് ബാക്ക് വേഡായിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിൽ സഹായിക്കുന്നതിനായിട്ട് ധാരാളം വഴികളിപ്പോൾ നമ്മൾക്ക് നിലവിലുണ്ട് നല്ല മാർക്ക്ള്ള കുട്ടികൾക്ക് സ്കൂളിൽ പ്രത്യേകം അവർക്ക് വേണ്ടി സ്കോളർഷിപ്പുകൾ നിലവിലുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നതിനായിട്ട് ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കളറ് ഡ്രീമെന്നും പറഞ്ഞോണ്ടൊരു പ്രോഗ്രാമൊണ്ട് അതിൽ നല്ല മാർക്കുള്ള കുട്ടികൾ പ്ലസ് പത്താം ക്ലാസിലും പ്ലസ് ടൂലൊക്കെ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്കോളർഷിപ്പേർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ ധാരാളം കുട്ടികളുടെ പഠനത്തിനായിട്ട് നല്ല മാർക്കുള്ളവർക്ക് പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ്കളോ അല്ലെങ്കിൽ പഠനോപകരണങ്ങൾ മേടിച്ചുകൊടുത്തും ഒക്കെ സഹായിക്കുന്നുണ്ട് ജോലിക്കാണെങ്കിലും അവർക്ക് പ്രത്യേകം സംവരണം ഉണ്ട് മൈനോ മൈനോ മൈനോരിറ്റി ആയിട്ടുള്ള ന്യൂനപക്ഷത്തിനായിട്ടുള്ളവർക്ക് വേണ്ടി ജോലിക്ക് ആണേലും പരീക്ഷ എഴുതുമ്പോഴാണേലും അവർക്ക് കുറച്ചും കൂടെ ഇളവ് നൽകുന്നു ഇളവുകൾ നൽകുന്നുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ ജീവിത രീതികൾ കുറച്ചുകൂടി നല്ലതാക്കാനായിട്ട് പലതരത്തിൽ ഉള്ള സംവരണങ്ങൾ അനുവദിച്ചിട്ടുണ്ട് കുട്ടികൾ കുട്ടികളുടെ പഠനത്തിന് തന്നെയല്ല അവരുടെ കായികമായിട്ടുള്ള കാര്യങ്ങളിലും സംവരണമുണ്ട് അവരുടെ സ്പോർട്സിൽ ആണെങ്കിലും കുറച്ച് കൂടി നല്ല രീതിയിൽ മുൻപോട്ട് വരുന്നതിനു വേണ്ടി അവർക്ക് ക്യാമ്പ്കൾ ഒക്കെ സംഘടിപ്പിച്ച് പോഷകാഹാരത്തിലൊക്കെ ശ്രദ്ധ വരുത്തി കുറച്ചു കൂടി അവരെ ശക്തിപ്പെടുത്തുന്നതിനും സ്പോർട്സിലൂടെ നല്ല മികവ് കാണിക്കുന്ന കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവരണവും ഒക്കെ നടത്തി വരുന്നുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതി വരുത്താനാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പാട്ട്യോപകരണങ്ങൾ ആണെങ്കിലും പള്ളികൾ വഴിയോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ വഴിയോ സ്കൂൾ തുറക്കുന്ന സമയം ആകുമ്പോഴേക്കും പുസ്തകങ്ങളും അവർക്ക് വേണ്ട മറ്റ് ഉപകരണങ്ങളും ബാഗ്കൾ കുടകൾ ഇവയൊക്കെ ശേഖരിച്ചു വെച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധ വരുത്തി വരുക ചെയ്ത് വരുന്നുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരുത്താൻ ആകൂ എന്ന് ഉള്ള ഒരു ഉത്തമ ബോധ്യം അവർക്ക് നൽകുവാനായിട്ട് ശ്രമിച്ചു വരുന്നു മുൻപോട്ട് ഇനിയും വിവിധതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ടും താല്പര്യമുണ്ട്